എനിക്കിഷ്ടപ്പെട്ട സാഹിത്യകാരനെന്നു പറഞ്ഞാല് തകഴി തകഴിയുടെ കൃതികളൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ എം ടിയുടെ കൃതികളുമൊക്കെ നല്ലതാണ് തകഴിയുടെ ചെമ്മീൻ എന്ന പറയുന്ന കൃതി വളരെ നല്ലതായിരുന്നു അത് സിനിമ ആയപ്പോൾ അതിനകത്ത് നല്ല രീതിയില് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സിനിമ വളരെ നല്ല സിനിമയാരുന്നു അത് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടത് അത് അതിനകത്തെ കഥാപാത്രങ്ങളൊക്കെയാണേലും എല്ലാം ഹേർട്ട് ടെച്ചിങ്ങായിരുന്നു അത് നല്ല രീതിയില് ആ സിനിമയാക്കി എടുത്തിട്ടുണ്ട് തകഴിയുടെ കഥാപാത്രങ്ങള് ചെമ്മീനിലെ കഥാപാത്രങ്ങള് കറുത്തമ്മയും കൊച്ചുമുതലാളിയും പളനിയും ഒക്കെയാണല്ലോ അതിലെ എല്ലാവർക്കും അവരുടെതായ രീതിയിലുള്ള കഥാപാത്രങ്ങളെ വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കറുത്തമ്മയായിട്ട് അഭിനയിച്ച ഷീലയാണെല്ലോ അതിനകത്ത് മെയിനായിട്ട് ഷീല അത് നല്ല രീതിയില് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെതന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നു പറയുന്ന മനുഷ്യനും അടൂർ ഭവാനിയും ഒക്കെ ആ സിനിമായെ നന്നായിട്ട് അവര് അവരുടെതായ രീതിയില് അവര് അവരുടെ കഥാപാത്രങ്ങളെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സത്യന്മാഷാണേലും മധുസാറാണേലും ഒക്കെ നല്ല രീതിയില് അത് അവരുടേതായ രീതി അവര് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി ടച്ചിങ്ങായിട്ടുള്ള സീനുകളുണ്ട് മധുവും ഷീലയും വേർപിരിയുന്നതും അത് അതിലെ സത്യൻ അവരെ കല്യാണം കഴിക്കുന്നതും ഒക്കെ അവരുടെ ജീവിതവും ഒക്കെ നല്ല രീതിയില് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കഥാപാത്രങ്ങളെ അവര് അവരുടേതായ രീതിയില് അവരഭിനയിച്ചു പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ ഇപ്പോഴും ആ സിനിമയെന്നു പറയുന്നത് അതൊരു ഭയങ്കര ലോകോത്തര സിനിമയായി തന്നെ പെടുത്തുന്നൊരു സിനിമ തന്നെയാണ് അതിന് നിരവധി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലെ സത്യൻ്റെ കഥാപാത്രം നല്ല ഒരു രസകരമായ അനുഭവമാണ് തന്നിട്ടുള്ളത് പുള്ളി നല്ല രീതിയില്ത്തന്നെ അത് ചെയ്തിട്ടുണ്ട് കടലിൽ പോകുന്നതും വലയെറിയുന്നതും അതൊക്കെ നല്ല രസമാണ് അതൊക്കെ കണ്ടിരിക്കാനായിട്ട് മധു ഒരു നിരാശാ കാമുകനായിട്ട് കൊച്ചുമുതലാളി പളനി എന്നുപറയുന്ന കഥാപാത്രവും നന്നായിട്ട് കറുത്തമ്മ അതിനകത്തെ ഹൈലൈറ്റായിട്ടുണ്ട് എല്ലാവരും തന്നെ അവരുടെതായ രീതിയില് അവര് അവരുടെതായ അതില് കൂടുതലും അവരത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ് പ്രിയപ്പെട്ട തകഴി തകഴി ശിവശങ്കരപ്പിള്ള അവര്കൾക്ക് ഒരുകോടി പ്രമാണം നേരുന്നു നല്ല ഒരു സാഹിത്യകാരനായിരുന്നു പുള്ളിയുടെ ഒത്തിരി സൃഷ്ടികള് ഉണ്ട് അതിലൊക്കെ ഒത്തിരി അഭിമാനമുണ്ട് നമ്മുടെ കേരളതര ക്കരയ്ക്കു തന്നെ ഒരു അഭിമാനമാണ് തകഴി എന്നു പറയുന്ന സാഹിത്യകാരൻ നന്നായിട്ട് ആ ചെമ്മീനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നല്ല രീതിയില് തന്നെ അത് പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട്